ബാങ്ക് ഇടപാടുകൾ പൗരന്മാർക്ക് എളുപ്പമാകുന്ന രീതിയിലുള്ള സർക്കാർ പദ്ധതികൾ എന്നു വെച്ചാൽ ഒന്നാമത്തത് കാർഷിക ലോണാണ് കാർഷിക ലോൺ എന്നു വെച്ചാൽ കുറഞ്ഞ ഇൻട്രസ്റ്റ് നാല് ശതമാനം ഇൻട്രസ്റ്റില് ഗോൾഡ് ലോണെല്ലാം കാർഷിക ലോണായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അത് അവർക്ക് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും പിന്നെ മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടെല്ലാം എടുക്കേണ്ടിട്ട് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ചെറിയ വിലയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ അത് പെട്ടെന്ന് അടച്ചു തീർക്കാനും അവർക്ക് ഉപയോഗപ്രദമായിരിക്കും പിന്നെ വ്യാപാരികൾക്ക് മുദ്രാ ലോൺണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അന്നേരം അത് ഇൻട്രസ്റ്റ് കുറവും പിന്നെ എത്രയോ പൈസ തിരിച്ചടക്കേണ്ട എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത് അത് അവർക്ക് സാധനങ്ങൾ വാങ്ങാനും എല്ലാം വളരെ ഉപയോഗപ്രദമായിരിക്കും പിന്നെ മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞഞ്ഞാൽ കുടുംബശ്രീക്കാർക്ക് അതായത് സ്ത്രീകൾക്ക് ഹോട്ടലുകൾ അതുപോലെ തന്നെ കുടുംബശ്രീ സംരംഭങ്ങളെല്ലാം തുടങ്ങിട്ടുണ്ട് ലിങ്കേജ് മുറ്റത്തെ മുല്ല എന്നെല്ലാം പറഞ്ഞിട്ട് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീകൾ മുന്നോട്ടു വരണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടീട്ട് ചെയ്യുന്നതാണ് സർക്കാർ പദ്ധതിയാന്ന് അത് ഈ ബാങ്കിലൂടെയാണ് നടപ്പിലാക്കുന്നത് ലിങ്കേജ് മുറ്റത്തെ മുല്ല അതിൽ ഇൻട്രസ്റ്റ് വളരെ കുറവാണ് നാല് ശതമാനം ആറ് ശതമാനം ഇൻട്രസ്റ്റിൽ എല്ലാമാണ് ഈ മുറ്റത്തെ മുല്ലയും ലിങ്കേജ് എല്ലാം കൊടുക്കുന്നത് അപ്പോൾ ഈ പൗരന്മാർക്ക് ഉതകമാക്കുന്ന ഉപകാരപ്രദമാകുന്ന രീതിയിൽ തന്നെ സർക്കാർ പദ്ധതികൾ കൊണ്ടു വരുന്നതും അതുപോലെ തന്നെ അത് ബാങ്കിലൂടെ ധനകാര്യ സ്ഥാപനത്തിലൂടെ ജനങ്ങൾക്ക് സേവനങ്ങൾ മായിട്ട് മാറ്റുന്നത് വളരെ നല്ലൊരു പ്രവർത്തിയാണ്